ആ ഹലോ ചേച്ചി എന്താ ചേച്ചി വിളിച്ചത് ആ ചേച്ചീടെ ബഡ്ജറ്റ് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് ചെയ്യാമായിരുന്നു പിന്നെ എന്തൊക്കെ മെറ്റീരിയൽസാണ് ഉപയോഗിക്കണ്ടത് നമുക്ക്

അത് പണ്ടത്തെയൊരു മോഡലാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് അല്ലേ മതിയാകും ഓക്കെ ചേച്ചി പിന്നെ എന്തൊക്കെ മെറ്റീരിയൽസ് എന്തൊക്കെ സാധനങ്ങളാണ് ഉപ ഉപയോഗിക്കെണ്ടത് എന്നുള്ളതെന്ന് ചേച്ചി പറയണം

ഓക്കെ ആ ശരി ചേച്ചി പിന്നെ ഞാൻ എപ്പോൾ തൊട്ടാണ് ഈ ജോലിക്ക് വരേണ്ടത് അതേ ഞാനെൻ്റെ കൂടെ ഉള്ളവരോടൊന്ന് ഒന്ന് എല്ലാരോടുമൊന്ന് ചോദിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത് ആ ചേച്ചി എപ്പോഴാണ് ആ സ്ഥലത്തുണ്ടാകുക എന്നാൽ പിന്നെ എനിക്ക് ആ സമയത്ത് വന്നാൽ മതിയല്ലോ ആ അപ്പം ഞാൻ എനിക്കൂടെ കുറച്ചൂടെ ഒരു ഒഴിവുള്ള ഒരു സമയം നോക്കിയിട്ട് ചേച്ചിക്ക് വിളിക്കാം എപ്പഴാണ് വരുന്നതെന്ന് പറയാം അപ്പോൾ ചേച്ചി അവടന്ന് സ്ഥലത്തുണ്ടായാൽ മതി അപ്പോൾ പിന്നതിൻ്റെ ചെലവിനെ പറ്റി ഞാൻ ആ ശരി പിന്നതിൻ്റെ ചെലവിനെ പറ്റിയിട്ട് ഞാൻ വരുമ്പോൾ ചേച്ചിയോട് നേരിട്ട് സംസാരിക്കാം ഒന്നുമില്ല ഈ പ്രാവശ്യം ഞങ്ങൾക്ക് വർക്ക് കുറവാണേ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്ത് തരാം ആ ഓക്കെ ചേച്ചി ശരി ചേച്ചി ഞാനെന്നാ അവടേക്ക് വരുമ്പോൾ വിളിക്കാട്ടോ ആ ശരി ചേച്ചി